ആ ആരായിരുന്നു വിളിക്കുന്നത് ആ ശരി പറയൂ പറയൂ

ആ ഓഹ് ആണോ ആ ഓക്കേ ആ ഇൻഡോർ പ്ലാൻ്റസ് ഒരുപാട് വെറൈറ്റീ ഉണ്ട് നമുക്ക് ആ എന്താ ആ ഡൈനിംഗ് ഹാളിൽ വെയ്ക്കാൻ പറ്റുന്ന കൂട്ട് നമ്മുടെ അല്ലെങ്കിൽ റൂമിൽ റൂമിൽ വെയ്ക്കാൻ പറ്റുന്നത് ഹാളിൽ വെയ്ക്കാൻ പറ്റുന്നത് അങ്ങനെ എല്ലാം വീടിൻ്റെ ഏത് ഭാഗത്ത് വെയ്ക്കാൻ ആയിട്ടുള്ളതാണെങ്കിലും വെറൈറ്റീ ആയിട്ടുള്ള പ്ലാൻ്റസ് ഉണ്ട് റേറ്റ് ഒക്കെ വളരെ കുറവാണ് ആണോ ഇത് എവിടെ വെയ്ക്കാൻ ഉള്ളതാണെങ്കിലും റേറ്റ് വളരെ കുറവാണ് നമുക്ക് അഫ്ഫോർഡബൾ ആയിട്ടുള്ളതേ ഉള്ളൂ ഇതെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ തരുന്നത് ചട്ടി ചട്ടി ആകുമ്പോൾ മണ്ണ് മണ്ണ് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയത് ഉണ്ട് പ്ലാസ്റ്റിക്ക് ഉണ്ട് എങ്ങനെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചെയ്ത് തരും ഔട്ട്ഡോറും ഉണ്ട് കൂടുതലായിട്ടും ചെയ്യുന്നത് ഇൻഡോറിൻ്റെ ആണ്

ഓഹ് താങ്ക് യൂ